അഹ് ഇത് വയനാട്ടിലെ ടൂറിസ്റ്റ് ഗൈയ്ഡല്ലേ ആ ചേട്ടാ നമ്മുടെ കുറച്ച് ഫ്രെണ്ട്സുണ്ട് നമ്മളീ എറണാകുളത്തുള്ളത് അപ്പോള് നമ്മളെല്ലാവരും കൂടെ വയനാട്ടിലേക്കൊരു ട്രിപ്പ് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്

അല്ല നമ്മള് കുറച്ച് ദിവസം അവിടെ നില്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഏകദേശമൊരു പത്ത് ഇരുപത് പേരുടെ അടുത്തുണ്ടാകും ആഹ് അ ഇല്ലില്ല അങ്ങനെയില്ല ഓൾ വയനാട് കറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മള് മേയ്നായിട്ട് വൈൽഡ് ലൈഫാണ് ചൂസ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ കാട്ടില് റ്റെൻറ്റൊക്കെ അടിച്ച് അങ്ങനത്തെയൊരു സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത് അപ്പോള് നിങ്ങളുടെ ചാർജും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് വരുന്നത് ആ കുറച്ച് എമൗണ്ടായാലും കുഴപ്പമില്ല കുഴപ്പമില്ല നമ്മള് ടോട്ടലൊരു വൺ വീക്ക് കറങ്ങാനുള്ള രീതിയിലെടുത്തുകൊള്ളൂ പാക്കേജ് ആ അപ്പോള് ആ പറഞ്ഞുകൊള്ളൂ പറഞ്ഞുകൊള്ളൂ അപ്പോള് നമ്മുടെ ഫുഡ്ഡും സ്റ്റേയും കാര്യങ്ങളുമൊക്കെയോ ഫുഡ്ഡ് സ്റ്റേ ആ ഓക്കെ അപ്പം സ്റ്റേ വേണം സ്റ്റേ വേണം സ്റ്റേയും ഫുഡ്ഡും ഓക്കേ അപ്പോള് നമുക്ക് ചേട്ടനിപ്പം ഒറ്റ ഗൈയ്ഡാണോ വരിക അതോ നമ്മള് ഇരുപത് പേർക്കൊറ്റ ഗൈയ്ഡാണോ ആ ഓക്കെ ഓക്കെ ഞാനെന്തായാലും ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയര് ചെയ്തിട്ട് ആ ഞാനവരോട് ചോദിച്ചിട്ട് ഓക്കേ ഞാന് അവരോട് ചോദിച്ചിട്ട് കൺഫോം ചെയ്തിട്ട് ചേട്ടനെ ഞാനറിയിക്കാം ആ വൈൽഡ് ലൈഫാണ് മേയ്നായിട്ട് വേണ്ടത് ആ ചേട്ടനൊന്ന് വാട്സപ്പ് ചെയ്താല് മതി ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഞാൻ വാട്സപ്പിൽ മെസ്സേജയക്കാം അവരുടെ കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് മെസേജ് അയക്കാം ആ ഓക്കേ ബ്രോ ഓക്കെ ശരി